മലയാള ഭാഷയുടെ പ്രാതിനിധ്യമെന്നു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളഭാഷക്ക് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസം കഴിയുന്തോറും പ്രാധാന്യം കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വിദാഭ്യാസ രംഗത്തായിരുന്നാലും സമ്പ്രദായം പിന്നെ മാദ്ധ്യമങ്ങളുടെ സാന്നിധ്യത്തിലൊക്കെയായി പോലും കാരണമെന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കേ ഒരു പാശ്ചാത്യ ചിന്താഗതീ മുന്നോട്ടു വെച്ചു കൊണ്ടൊരു ഇംഗ്ലീഷ് മറ്റുള്ള ഭാഷകൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുട്ട് മലയാളഭാഷാ നമ്മുടെ സമൂഹത്തിൽ നിന്നന്യം നിന്നു പോകുന്ന രീതിയിലുള്ളൊരു രീതിയാണ് നമുക്ക് മുന്നോട്ടു വെച്ചിരിക്കണേ അപ്പം അത മാധ്യമങ്ങളിലായാൽ പോലും ഇപ്പം സോഷ്യൽ മീഡിയകളിലായാൽ പോലും നമ്മളേറ്റവും കൂടുതലുപയോഗിക്കുന്ന ഭാഷയെന്നു പറയണത് ഇംഗ്ലീഷായിരിക്കും നമ്മളൊന്നു കൂടി യൂസ് ഫുള്ളായതും നമുക്കിംഗ്ലീഷാണ് പിന്നെ ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കളൊക്കെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ് കുട്ടികളൊക്കെ ചേർക്കുന്നതു കാരണം എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലവരുടെ പഠനവും എന്താ ജീവിതവും ഒക്കെ ഡിപ്പെൻ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് കാരണം മലയാളം മാത്രം പഠിച്ചു കൊണ്ടു നമ്മുടെ നമ്മളുടെ കേരളത്തിൽത്തന്നെ നമുക്ക് ത എന്താ നിലനിൽക്കുന്നത് ബുദ്ധിമുട്ടാണ് പിന്നല്ലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും അപ്പം എന്താ വെച്ചാൽ മലയാളഭാഷേൻ്റെ ഒരു പ്രാതിനിധ്യം നമ്മുടെ നാട്ടീൽ നിന്നു വളരെ കുറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതും കൂടി നമ്മുടെ ഭാഷക്ക് ഒരു പ്രാധാന്യം വേണം പിന്നതുപോലെ തന്നെ നമ്മൾ നമ്മളാണ് നമ്മളുടെ ഭാഷയെ സംരക്ഷിക്കേണ്ടതും അത് ഓരോ മലയാളിയും മനസ്സിലാക്കേണ്ടൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് മലയാളഭാഷക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പ്രാതിനിധ്യം നമ്മൾ ഭാവിയിൽ ഉണ്ടാക്കി കൊണ്ട് വരണമെന്നുള്ളതു കൂടി നമ്മുടെ ഒരു കടമയാണ്